ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് അഞ്ച് ലക്ഷത്തി അൻപത്തിയഞ്ചായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രണ്ട് ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് ഒരു ലക്ഷത്തി അൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് രണ്ട് ലക്ഷത്തി നാപ്പത്താറായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട്